ഞാൻ മീഷോയിൽ നിന്നും ഒരൂ ജൂസർ മെഷീൻ ഓർഡർ ചെയ്തായിരുന്നു അതപ്പോൾ കഴിഞ്ഞ ദിവസമാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് ഞാനത് വെച്ച് ഓരോ ഫ്രൂട്ട്സ് ആയിട്ടിട്ട് ജ്യൂസ് അടിച്ച് നോക്കി അപ്പോൾ എനിക്കത് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി അപ്പോൾ അതിൽ ചിലതൊക്കെ നമുക്ക് വാങ്ങുമ്പോൾ തന്നെ നല്ലതായിട്ട് തോന്നാറില്ല അപ്പോൾ ഇത് ഞാൻ ഒത്തിരി പേരെ റിവ്യു കണ്ട് വാങ്ങിച്ചതാണ് അപ്പോൾ എനിക്കത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ അതെനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ അത് മനസ്സിലായില്ലായിരുന്നു ഞാനത് ഒരു യൂട്യൂബ് വഴി നോക്കിയത് പഠിച്ച് നന്നായിട്ട് വർക്ക് ചെയ്ത് നോക്കി ഓരോ വ്യത്യസ്തമായ ഫ്രൂട്സും അതിനുള്ളിൽ ആഡ് ചെയ്ത് ജ്യൂസ് ആക്കി എടുത്തു അത് നമുക്ക് നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആണത് അതായത് സ്പീഡിൽ അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി നല്ലൊരു പ്രൊഡക്റ്റ് ആണ് മീഷോയിൽ നിന്ന് വാങ്ങിച്ചത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്